ആ ഹലോ ആ പറഞ്ഞോ ആ ഉണ്ടായിരുന്നല്ലോ ആ നമുക്കിവിടെ എല്ലാ തരം വെജിറ്റബിൾസും ഉണ്ട് ഹ്മ് ക്യാരറ്റ് പിന്നെ പയറ് അതുപോലെ എല്ലാ പല വെജിറ്റബിൾസും നമ്മൾ ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട് ആ ആ ആ ആയിക്കോട്ടെ ആ ആ ആ ആ ആ ആ ആയിക്കോട്ടെ ഓ ഹോ ഹോ ആണോ എത്ര എടുക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഉള്ളത് ഫുൾ ആയിട്ട് തരാൻ വേണ്ടിയിട്ടാണോ ആ വന്ന് എടുത്തോളൂ കുഴപ്പം ഒന്നുമില്ല

നിങ്ങൾ ഫ്രീ ആവുമ്പം വിളിച്ചാൽ മതി ഞാൻ എപ്പോളും ഇവിടെ ഫ്രീ ആണ് കുഴപ്പം ഒന്നും ഇല്ല ആ വരുമ്പം ഒന്ന് ജസ്റ്റ് വിളിച്ചാൽ മതി ആ നല്ല ക്വാളിറ്റി ആണ് നമ്മൾ അവിടെ സ്വന്തം കൃഷി ചെയ്ത് ഉണ്ടാക്കുന്ന ഒരിതാണ് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല ആ ഓക്കെ ആ വാങ്ങിക്കോട്ടെ ആയിക്കോട്ടെ ആ വാങ്ങിക്കോട്ടെ വിളിക്കുമ്പം എന്തായാലും ജസ്റ്റ് വരുമ്പം ഒന്ന് വിളിച്ചാൽ മതി വരുമ്പം ജസ്റ്റ് വിളിച്ചാൽ മതി ഏ എന്നാണ് ആ അതെ അതെ വരുന്നതിന്റെ രണ്ട് ദിവസം മുന്നേ എന്തായാലും വിളിച്ച് അറിയിക്കണം കേട്ടോ ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ ആ ശരി ഹ്മ്